നമ്മൾ കേരളത്തിൻ്റെ പ്രാദേശിക വാർത്തയാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ട ആ വാർത്തയാണ് ഞാൻ കൂടുതലും കാണാറുള്ളത് അതാകുമ്പോഴത്തേനും മലയാളമാണ് സംസാരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്ന മണ്ണിടിച്ചിലിൻ്റെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിനകത്ത് എല്ലാം തന്നെ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്ന് നമ്മളെ മനസ്സിലാക്ക് വ്യക്തമായിട്ടു പറഞ്ഞു തരുവാനും നമുക്ക് അതു കേൾക്കാനുമാണ് എനിക്കും കൂടുതലായിട്ടും ഇഷ്ടം അതു ഞാൻ എപ്പോഴും കേൾക്കാറുമുണ്ട് പക്ഷെ കേന്ദ്ര കേന്ദ്ര വാർത്തയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് പല ഭാഷകളിലായിട്ടാണ് സംസാരിക്കുന്നത് അതു നമുക്കത്ര അറിയാൻ വയ്യാത്തതു കൊണ്ട് നമ്മളത് അത്ര കാര്യമായിട്ട് എടുക്കാത്തതു കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറയുകയും നമ്മൾ അറിയുകയും വന്ന സർക്കാരിൻ്റെ എല്ലാ നിയമങ്ങളും അതിലൂടെ നമ്മൾക്കു പറഞ്ഞു തരികയും നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് അതെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോടു പറഞ്ഞ് നമ്മളത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രാദേശിക വാർത്ത തന്നെയാണ് അതാണ് നല്ലത് നമ്മൾക്ക് മലയാളം മാത്രം മലയാളത്തിൽ പറഞ്ഞു തരും പറയുമ്പോഴത്തേനും നമ്മൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും നമുക്കത് അറിയാൻ പറ്റും നമ്മൾ അത് കേൾക്കുന്നുണ്ട് നല്ല എല്ലാ എല്ലാ വാർത്തയും എല്ലാ കാര്യങ്ങളും നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെയാണെങ്കി ലും മണ്ണിടിച്ചിലിൻ്റെയാണെങ്കിലും എല്ലാ കാര്യങ്ങളും അതാതു സമയത്ത് എല്ലാം നമ്മളോട് നമ്മൾക്ക് അതു കേൾക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അതാണ് ഏറ്റവും കേന്ദ്ര കേന്ദ്ര വർത്തയുമായിട്ട് പ്രാദേശിക വാർത്ത വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് പ്രാദേശിക വാർത്തയാണ് ഏറ്റവും നല്ലത്